ധാരാളമായി മറ്റുള്ളവരുടെ കൂടെ ബൈക്ക് യാത്ര നടത്തിയിട്ടുണ്ട് തിരക്ക് പിടിച്ച് പെട്ടെന്ന് എത്തേണ്ട സ്ഥലങ്ങളിൽ ബൈക്ക് യാത്രയാണ് പ്ലാൻ ചെയ്യാറ് പ്ലാൻ ചെയ്യാറുള്ളത് അതാകുമ്പോൾ ട്രാഫിക് ബ്ലോക്ക് ബ്ലോക്കുകളിൽ പെടാതിരിക്കുകയും ഷോർട്ട്കട്ടുകൾ തിരഞ്ഞെടുക്കാൻ കഴിയുകയും ചെയ്യും തിരക്ക് പിടിച്ച സമയങ്ങളിൽ ബൈക്ക് യാത്രയാണ് സൗകര്യം ഒരു ജോലി ചെയ്ത് കൊണ്ടിരിക്കുമ്പോൾ തന്നെ പെട്ടെന്ന് പോയി തിരിച്ച് വരാനും കഴിയും അതുപോലെ ബൈക്ക് യാത്ര ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം തന്നെയാണ് ഒരിക്കൽ ഞാൻ സാരിയുടുത്ത് ബൈക്കിൽ പുറകിൽ ഇരിക്കുവായിരുന്നു അപകടം സംഭവിക്കേണ്ടതായിരുന്നു അതും ശ്രദ്ധിക്കണം അതുപോലെ ചുരിദാറ് ചുരിദാറിട്ടാലും അത് ഷാള് ബൈക്കിൻ്റെ പുറകിൽ കുടുങ്ങാൻ സാധ്യതയുണ്ട് അതും ഒക്കെ ശ്രദ്ധിക്കണം എന്നാലും ബൈക്ക് യാത്ര ഉപകാരം തന്നെ